ബോളിവുഡ് അഥവാ ടോളിവുഡ് ഇങ്ങനെ എല്ലായിടങ്ങളിലും ഫാഷൻ ട്രൻഡുകൾ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ യുവ തലമുറകളെ എത്രത്തോളം ട്രെൻസും അതുപോലെതന്നെ ഫാഷൻ സ്വാധീനിക്കുന്നതെന്നും അറിയാം ഫാഷൻ എന്നു പറയുമ്പോൾ പല തരത്തിലുള്ള ഡ്രസ്സ് ആൾക്കാരുകൾ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ ഒരാൾക്കും ഇഷ്ടംപോലുള്ള വസ്ത്രം ധരിക്കാനുള്ളൊരു ച്യൂസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മുടെ പല രാജ്യങ്ങളും നൽകുന്നുണ്ട് അതു മാത്രമല്ല കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതിനുപോലും വസ്ത്രധാരണം സ്വാധീനം ചെലുത്തുന്നുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വസ്ത്രധാരണരീതിയിൽ ഒരാൾ കോൺഫിഡൻസ് ലെവല് ഉയർത്തുവാനും മറ്റെല്ലാം സാധിക്കുന്നുണ്ട് ഇപ്പോഴൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു ഇൻ്റർവ്യൂവിനുപോലും അതിൻ്റെതായ ഒരു ഡ്രസ്സ് കോഡുണ്ട് അതിലെങ്ങനെ അവരതിൽ പറയണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവരത് പറയുന്നുമുണ്ട് അതായത് കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ അവർ ഹെൽപ്ഫുള്ളും ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു പർട്ടിക്കുലർ ഒരു ഡ്രസ്സ് ഫാഷനബിളായിട്ടുണ്ടെങ്കിൽ അത് ശരിക്കിനും ഒരാൾക്ക് ഹെൽപ്ഫുള്ളുമാണ് അതുപോലെതന്നെ ഏതെങ്കിലും സിനിമയിൽ വസ്ത്രത്തിന് സമാനമായ വസ്ത്രങ്ങൾ സൃഷ്ടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനത്തെ വസ്ത്രങ്ങൾ ഒരു സിനിമയിലൊരു വസ്ത്രം ട്രെൻഡാണെങ്കിൽ അത് മറ്റുള്ള ഇൻഡസ്ട്രി പോക്കോ ഈ തുണിയും ഒക്കെ നിർമ്മിക്കുന്ന ഇൻഡസ്ട്രി അതൊക്കെ ഫോം ചെയ്ത് അവരതിനെ മാർക്കറ്റിലേക്ക് എടുക്കുകയും ആളുകൾക്ക് അത് ഹെല്പ്ഫുള്ളുമാണ്